ബൈക്കിങ്ങ് സംഘടനകളുമായി ബന്ധപ്പെടാനും എനിക്കങ്ങനെ താൽപ്പര്യമില്ല എനിക്ക് സോളോ റൈഡാണിഷ്ടം ഒറ്റയ്ക്ക് പോകുന്നതാണെനിക്കിഷ്ടം പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒറ്റക്ക് റൈഡ് ചെയ്ത് പോവാനാണെനിക്ക് താല്പര്യം ഞാൻ റൈഡ് ചെയ്യാറുണ്ട് ഞാൻ ജമ്മു കാശ്മീര് വരെ ഒക്കെ ഒറ്റക്ക് റൈഡ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരുപാട് എക്സ്പീരിയൻസ് ഒറ്റയ്ക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് അതൊരു പൊളി വൈബാണ് നമ്മളൊരുപാട് പേരുടെ കൂടെ പോകുമ്പം സേഫ്റ്റിയാണ് പക്ഷെ ഒറ്റക്ക് പോകുന്നതാണ് എനിക്ക് ഇഷ്ടം എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ആകുമെന്ന് മാത്രം അല്ലെങ്കിൽ നമ്മളൊറ്റയ്ക്ക് പോകുമ്പോൾ അതിൻറ്റേതായൊര് എൻജോയ്മെന്റ് എല്ലാവരുടെയും കൂടെ പോകുമ്പോൾ കുഴപ്പം ഒന്നും ഇല്ല പക്ഷെ എനിക്ക് ഒറ്റക്ക് പോകാനാണ് കൂടുതൽ താല്പര്യം